ചിത്രരചന വരക്കാനായിട്ട് ഒര് ശരിയായ വയസ്സ് എന്ന് പറയാന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല കാരണം കുട്ടികളൊര് മൂന്ന് മൂന്നര വയസ്സ് തുടങ്ങുമ്പോഴേ അവരുടെ കയ്യില് പെൻസില് പിടിക്കാൻ തുടങ്ങുമ്പോൾ അവര് വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങളവര് വരച്ച് തുടങ്ങും അത് അവരുടെ മനസ്സില് കാണുന്ന നമ്മൾക്കത് ചിത്രമായി തോന്നില്ലെങ്കിലും അവരുടെ മനസ്സിലതൊര് എന്തിൻ്റെങ്കിലും ഒരു രൂപമാകും അവരത് വരച്ചിട്ടുണ്ടാവുക അതവര് വരച്ചിട്ട് നമ്മളോട് പറയും ഇത് ഇനതാണ് എന്നുള്ളത് അങ്ങനെ ആ ഒര് മൂന്ന് മൂന്നര വയസ്സ് മുതലേ അവര് അവരുടേതായ സങ്കല്പത്തില് ചിത്രങ്ങള് വരയുന്നും അവര് സങ്കല്പിച്ച് വെയ്ക്കുന്നുണ്ടാവും പിന്നെ അതിൽ നിന്നിങ്ങനെ ഓരോ കുട്ടികള് ഓരോരുത്തരുടേതായ കഴിവുകൾ പുറപ്പെടിച്ച് വരുമ്പോൾ ചിത്രങ്ങള് വരച്ചിട്ടും കടലാസുകളിലും ചുമരിലൊക്കെ ആയിട്ട് ചിത്രങ്ങള് വരച്ച് വരുമ്പോൾ ഓരോന്ന് ഒരു നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച് കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ വരകള് ക് വികാസം കൊണ്ട് വരും അപ്പം അതിന് അനുസരിച്ച് അവരുടെ പേഷീ വികാസവും കാര്യങ്ങളുമൊക്കെ വന്ന് കൊള്ളുന്നതിന് അനുസരിച്ച് നമുക്ക് അവരുടെ കഴിവിനനുസരിച്ച് അവർക്കുള്ള ചിത്ര രചന പോലുള്ള കലകൾക് കുട്ടികളെക്കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് നോക്കാം പൊതുവേ അതൊര് ഒന്നാം ക്ലാസ്സ് മുതലൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങാം ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ആരംഭിക്കാനാണ് തോന്നുന്നത്